ഞങ്ങളുടെ പ്രദേശത്തെ പ്രാഥമിക തൊ തൊഴില് തീര്ച്ചയായിട്ടും കൃഷി തന്നെയാണ് അത് നെല് കൃഷി മാത്രമല്ല തെങ്ങ് വാഴ കശുമാവ് റബ്ബർ അങ്ങനെ ഒരുപാട് തരത്തിലുള്ള കൃഷികള് നമുക്ക് നമ്മൾ ചെയ്തു വരുന്നുണ്ട് ഇത് കാണാനായി ഇപ്പം നെല്കൃഷിയാണെങ്കിലും ഇത് കാണാനായിട്ട് ഇഷ്ടംപോലെ വിനോദസഞ്ചാരികള് വരാറുണ്ട് തൊഴിലുകളുടെ വെല്ലുവിളി ശരിക്കും നമുക്ക് കൃത്യമായിട്ടുള്ള മഴ ലഭിക്കാത്തതും അതുപോലെ കള കളകള് വന്ന് നമ്മുടെ വിള നശിക്കുന്നതും അതൊക്കെ ഒരുപാട് വെല്ലുവിളികള് തന്നെയാണ്